നാട്ടിൽ ഗവൺമെന്റ് ഒക്കെയുണ്ട് ഭരണത്തിലൊക്കെയാണ് എങ്കിലും സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പലരും പല വിട്ടു വീഴ്ചയ്ക്കും തയ്യാറാകുന്നുണ്ട് പണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി പരിസ്ഥിതിക്കൊക്കെ ദോഷം വരുന്ന രീതിയിൽ

പാടങ്ങളും കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തി വീട് ഉണ്ടാക്കാനും അതേപോലെ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പരിസ്ഥിതിക്കും നമ്മടെ ജീവജാലങ്ങളുടെ വളർച്ചയ്ക്കും എല്ലാത്തിനും അതു ബാധിക്കും അതുകൊണ്ട് തന്നെ ഇത് ഒക്കെ ദോഷമാണ് ഉണ്ടാക്കുന്നത് ഇത് മൂലം നമ്മുടെ നാട്ടിൽ മൊത്തം ദോഷമാണ് നല്ലൊരു ഭരണഘടനയ്ക്ക് കീഴിലാണ് ഇന്ത്യ എങ്കിലും നമ്മളുടെ നാട്ടു പ്രദേശങ്ങളിലുള്ള ഭരണം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയ്ക്ക് ഗ്രാമ പ്രദേശങ്ങളിലൊക്കെ കുറ്റ കൃത്യങ്ങളും അതേപോലെ സാമൂഹ്യ വിരുദ്ധരുടെ ഇടപാടും ഇടപെടലും ഒക്കെ നമ്മളനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്